ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മോശമാണെന്ന് തന്നെ പറയാം കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ വിദേശരാജ്യങ്ങളിൽ പോയി ഇത് ചെയ്യുന്നത് സാധാരണപ്പെട്ടവര് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്ന മന്ത്രിമാരും വലിയ പോസ്റ്റിലിരിക്കുന്നവരുമൊക്കെ ചെറിയൊരസുഖം വന്നാലും വെളീ രാജ്യങ്ങളിൽ പോകുന്നു എന്നുള്ള എന്നു പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യമേഖലയുടെ സംവിധാനങ്ങൾ മോശമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ വെളിയില് പോകുന്നത് അല്ലെങ്കിലവര് പോകത്തില്ലല്ലോ പ്രത്യേകിച്ച് ശുചിത്വവും നീണ്ട ക്യൂവും ഇതുമൊക്കെ കൂടുതല് തന്നാണ് ചെലവെന്ന് പറയുമ്പഴ്ത്തേക്ക് തീർച്ചയായിട്ടും അത് കൂടുതല് തന്നാ കാരണമെന്നുവച്ചുകഴിഞ്ഞാല് കാശ് ഇറങ്ങുന്നതിന് ഒരു കയ്യും കണക്കുമില്ല ഇവിടുത്തെ ആരോഗ്യ മേഖലയില്